പാചകം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് പാചകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ആവശ്യങ്ങൾ പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാചകം നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ കഴിക്കുന്നവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ല നല്ല വാക്കുകൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നും ഒരു പ്രചോദനമാണ് പാചകം ഒരു കല കൂടിയാണ് എന്നാണ് പറയുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ അൽപ്പം സ്നേഹം കൂടി ചേർത്ത് കൊടുക്കു കൊടുക്കുമ്പോഴാണ് ഭക്ഷണത്തിന് കൂടുതൽ രുചി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ പാചകം പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്നായിരുന്നു എൻ്റെ അമ്മ നന്നായി ഭക്ഷണം ഉണ്ടാക്കിത്തരുമായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പകാലത്തൊന്നും ഞാൻ അധികം എരിവ് ഉള്ള ഭക്ഷണം കഴിക്കുമായിരുന്നില്ല ഞാനും എൻ്റെ അനിയനും അതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതലും അമ്മ തൈരും മുട്ട ഓംലൈറ്റും ചേർത്തായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി തരാറ് അത് മുളകൊന്നും ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്ത് അങ്ങനെ ആയിരുന്നു ഭക്ഷണം ചെറുപ്പകാലത്ത് കഴിച്ചിരുന്നത് സ്വീറ്റ്സോഡായിരുന്നു എന്നും ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും സ്വീറ്റ്സുണ്ടാക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അനിയന് നോൺ വെജ് ഐറ്റംസിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവന് വേണ്ടി ഞാൻ നോൺ വെജ് ഐറ്റംസും ഉണ്ടാക്കാൻ തുടങ്ങി വീട്ടിൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കി അവന് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടി കൂടി വരും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി കൂടി വരും അങ്ങനെയാണ് എനിക്ക് ഭക്ഷണം ഒരു വ്യവസായമാ വ്യവസായമായി തുടങ്ങിയാലോ എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത് നല്ല അഭിപ്രായങ്ങൾ കേട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകും അതിന് വീട്ട്കാരുടെ നല്ല പിന്തുണയും എനിക്കുണ്ടായിരുന്നു നോൺ വെജ് ഐറ്റംസ് ഞാൻ കൂടുതലും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ സ്വീറ്റ്സ് ഐറ്റംസോടാണ് കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക് നോൺ വെജ് ഐറ്റംസ് അപ്പോൾ വീട്ടിലെ എല്ലാ വിധ ഭക്ഷണവും ഉണ്ടാക്കാൻ ഉണ്ടാക്കേണ്ടി വരാറുണ്ട് കുട്ടികൾക്ക് വേറെ എനിക്ക് വേറെ അച്ഛനും അമ്മക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അങ്ങനെ അതുകൊണ്ട് പലതരം എല്ലാ വിഭവങ്ങളും വെജും നോൺ വെജും സ്വീറ്റ്സും എല്ലാ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു കൂടുതൽ ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപെടുന്ന ഭക്ഷണം യു ട്യൂബ് വഴി യു ട്യൂബ് നോക്കി ഞാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് യു ട്യൂബിൽ നോക്കിയാണ് ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് കേക്ക് ഐറ്റംസ് കേക്കുകളെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് ഈ കേക്ക് ഒരു വ്യവസായമായി കേക്കുണ്ടാക്കി കൊടുക്കാൻ വ്യവസായമായി തുടങ്ങിയാലോ എന്ന് വീട്ടുകാർ എന്നോട് പറഞ്ഞു അതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കുമെന്ന് അവരുടെ നല്ലൊരു പിന്തുണയും പ്രചോദനവും എനിക്കുണ്ടായിരുന്നു ഞാൻ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കഴിക്കാറില്ലെങ്കിലും നോൺ വെജ് ഐറ്റംസ് നന്നായി പാചകം ചെയ്ത് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം പാചകങ്ങൾക്കും ഭക്ഷണ പദാർഥങ്ങൾക്കും നല്ല നല്ല അഭിപ്രായങ്ങളായിരുന്നു അവരെപ്പോഴും പറഞ്ഞിരുന്നത് മോശം അഭിപ്രായം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടുതലായിരുന്നു നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിനെപ്പറ്റി നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സംതൃപ്തിയും അപ്പോൾ കൂടുതലായിരിക്കും പിന്നാ പുറമെ നിന്ന് ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ മായം കലരാത്ത ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാനും ആരോഗ്യപരമായി നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും നമുക്ക് പറ്റും ആൾക്കാർ എൻ്റെ വീട്ടുക്കാരും ബന്ധുക്കളും ഉണ്ടാക്കുന്ന ഭക്ഷണത്തെപ്പറ്റി നല്ല അഭിപ്രായം പറയുമ്പോഴാണ് എനിക്കും ഒരു മനസ്സിൽ ഒരു ആശയം ഉണരുന്നത് നല്ല രീതിയിൽ ഇത് ഒരു സംരംഭമായി തുടങ്ങി ഈ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം ആവു ആവുകയും ചെയ്യും എനിക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുകയും ചെയ്യാം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് അതു കൊണ്ട് ഞാൻ യു ട്യൂബ് വഴിയും എൻ്റെ ഫ്രണ്ട്സോട് ചോദിച്ച് പുതിയതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് സ്വീറ്റ്സ് ഐറ്റംസും മറ്റും ഞാൻ അവരിൽ നിന്നും പഠിക്കുകയും അവരിൽ നിന്നും അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവരതിനുള്ള അഭിപ്രായങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും അവർക്കാറിയാവുന്ന രീതിയിലുള്ള പുതുതായിട്ടുള്ള കുറേ ഐറ്റംസ് എനിക്ക് അവർക്കാറിയാവുന്ന രീതിയിൽ അവരെനിക്ക് പറഞ്ഞു തരികയും ഞാൻ അത് പരീക്ഷിക്കുകയും എൻ്റെ വീട്ടുകാർക്കും മറ്റും നൽകി അവർ നല്ല അഭിപ്രായം പറയുകയും ചെയ്തപ്പോൾ ഇതൊരു വ്യവസായമായി തുടങ്ങാമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു അതിന് എൻ്റെ വീട്ടുകാർ എനിക്ക് പൂർണ്ണ പിന്തുണയും നൽകി ബാക്കിയുള്ളവർ മറ്റ് ഒരു ഹോട്ടൽ പോലെയുള്ള ഒരു തുടങ്ങുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് ചിലവും മറ്റ് കാര്യങ്ങളും വരുന്നത് കൊണ്ട് വീട്ടിൽന്നെല്ലാം വീട്ടിൽ നിന്ന് തന്നെ അതൊരു വ്യവസായ രൂപമാക്കി മാറ്റിയാലോ എന്നായിരുന്നു എൻ്റെ ആലോചന അതിന് എൻ്റെ ഭർത്താവും കുടുംബങ്ങളും എല്ലാ പിന്തുണയും എനിക്ക് നൽകി എനിക്ക് കൂടുതൽ മധുര പലഹാരങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനാണ് എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ നോൺ വെജ് ഐറ്റംസ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമായതു കൊണ്ട് അതും ഞാൻ പഠിച്ചു കഴിക്കാറില്ലെങ്കിലും അവർക്ക് ഇഷ്ടപെട്ടതായത് കൊണ്ട് ഞാൻ ആ അതുപോലുള്ള നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള പോലാക്കി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അമ്മയിൽ നിന്നായിരുന്നു ഞാൻ ഈ പാചകങ്ങളും മറ്റും പഠിച്ചത് അമ്മ അധികമൊന്നും സ്വീറ്റ്സൊന്നും ഉണ്ടാക്കാറില്ല എണ്ണ പലഹാരങ്ങൾ മറ്റും അമ്മ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും അമ്മ വളരെ ടേസ്റ്റിയായിട്ട് ഉണ്ടക്കാ ഉണ്ടാക്കുമായിരുന്നു എല്ലാവരും പറയും പാരമ്പര്യമായി കിട്ടിയതാണ് നിനക്ക് ഈ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് എൻ്റെ മുത്തശ്ശിയും അമ്മയുടെ അമ്മ നല്ലാ രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യും വളരെ ടേസ്റ്റിയായി പാചകം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മാത്രമല്ല കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുമുണ്ട് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഭക്ഷണം ആയിരുന്നു മുത്തശ്ശി ഉണ്ടാക്കിയിരുന്നത് അതേ കൈപുണ്യത്തോടു കൂടിയാണ് അ എൻ്റെ അമ്മയും ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയിൽ നിന്നാണ് എനിക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പാരമ്പര്യമായി നമുക്ക് അനുഗ്രഹിച്ച് ദൈവം തരുന്നൊരു കൈപ്പുണ്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇത്രയും ടേസ്റ്റിയായിട്ട് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് സ്വയം തൊഴിൽ രംഗത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്തായിരുന്നു പാചകം എനിക്ക് ഇഷ്ടപെട്ട സംഭവം ആയിരുന്നല്ലോ അപ്പം പാചകം തന്നെ അതിന് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചത് അങ്ങനെയാണ് ഞാൻ പാചകം ചെയ്ത് തുടങ്ങിയത് അതിന് എൻ്റെ വീട്ടുകാരുടെ എല്ലാ പിന്തുണയും എനിക്ക് കിട്ടുകയും ചെയ്തു